എൻ്റെ പേര് ആതിര ഞാൻ മീഷോയിൽ നിന്നു രണ്ടു കുർത്ത വാങ്ങിയിരുന്നു ഒരെണ്ണം വെസ്റ്റേൺ വെയറാണ് ഒരെണ്ണം നോർമൽ കുർത്താസാണ് ഞാനാദ്യമായിട്ടാണ് മീഷോയിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നത് അതു തന്നെ വളരെ ഹാപ്പിയായിട്ടു ഞാൻ പറയാം വളരെ നല്ല പ്രോഡക്റ്റായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സൈസ് വൈസാണെങ്കിൽ ഫസ്റ്റ് തന്നെ സൈസ് വൈസ് പറയാണെങ്കിൽ സൈസ് പെർഫെക്റ്റ് ആയിരുന്നു ഒന്നു മോൾക്കുമായിരുന്നു ഒന്നു എനിക്കുമായിരുന്നു ഒന്നു മീഡിയം ഒന്ന് എക്സലാണ് വാങ്ങിയത് കറക്ട് ഫിറ്റിങ്ങാണ് മാത്രമല്ല വൈടും നെക്കൊക്കെ നല്ല വൈഡായിരുന്നു സാധാരണ നമ്മളൊരു റെഡി മേഡ് കുർത്ത വാങ്ങുമ്പോൾ ശരിക്കും നല്ല കയറിയ കഴുത്തൊക്കെയാണ് സാധാരണ കാണാറ് ദിസ് നല്ലതായിട്ട് ഇറങ്ങി നല്ല പെർഫെക്റ്റ് ആയിരുന്നു നമ്മൾ സ്റ്റിച്ച് ചെയ് നാളെ നമ്മൾ നമ്മൾ തുണി മേടിച്ച് സ്റ്റിച്ച് ചെയ്യുന്നതു പോലെ തന്ന കറക്റ്റായിട്ടു തോന്നി ഇട്സ് വെരി നൈസ് എനിക്ക് ഭയങ്കരമായിട്ടു ഇഷ്ടപ്പെട്ടു പിന്നെ അടുത്തത് മെറ്റീരിയലിനെ കുറിച്ച് പറയാണെങ്കിൽ മെറ്റീരിയൽ വളരെ നല്ല സോഫ്റ്റ് മെറ്റീരിയലെ കോട്ടണായിരുന്നു സോഫ്റ്റ് കോട്ടനാണ് വാങ്ങിയത് നല്ല സോഫ്റ്റാണ് കോട്ടൺ നല്ല നല്ല കംഫോർട്ടബിളായിട്ടു നമുക്ക് ഇടാൻ പറ്റുന്ന മെറ്റീരിയലായിരുന്നു ഞാൻ ഇട്ടു വാഷ് ചെയ്തിരുന്നു വാഷ് ചെയ്തപ്പോൾ കളറൊന്നും പോയില്ല ചുരുങ്ങിയില്ല ഇട്സ് വെരി എന്താ പറയുക ആദ്യമായിട്ടു മേടിച്ച പ്രോഡക്റ്റാണ് ഇത്രയും നല്ല ഒരു റിവ്യൂ പറയാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് വാഷ് ചെയ്തപ്പൊൾ തന്നെയാണെങ്കിലും കളറൊന്നും ഫെയ്ഡായതില്ല എല്ലാം എല്ലാം കൊണ്ടും നല്ലൊരു ഗുഡ് പ്രോഡക്റ്റായിരുന്നു എനിക്കും മോൾക്കുമാണെങ്കിലും നല്ല ഫിറ്റിങ്ങുമായിരുന്നു സൈസ് കറക്റ്റായിരുന്നു കളർ ഞാൻ ഓഡർ ചെയ്തപോലെ തന്നെ കളറാണ് വന്നത് കളർ കോംബോ അങ്ങനെ തന്നെയാണ് വന്നത് ഞാനൊരു പിങ്കും റെയ്ഡുമാണ് ഓർഡർ ചെയ്തിരുന്നത് രണ്ടും ഞാൻ ഓഡർ ചെയ്ത സെയിം മെറ്റീരിയൽ മ്മ് ഓഡ്ഡ് സെയിം പാറ്റേൺ തന്നെയായിരുന്നു വന്നായിരുന്നത് ഡാമേജസൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കളറാണെങ്കിലും ഫെയ്ഡായില്ല കളർ കഴുകിയിട്ടാണെങ്കിലും ഫെയ്ഡായില്ല ചുരുങ്ങിയില്ല പെട്ടെന്നു സാധാരണ എല്ലാം കോട്ടൺസും ചുരുങ്ങി പോകാറുണ്ട് ദിസ് ഇതു നോർമലായിട്ടുള്ള ഇത് മാത്രമേയുണ്ടായിരുന്നുള്ളു വേറൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഞാൻ വളരെ സാറ്റിസ്ഫൈഡാണ് മീഷോലേ ഈയൊരു പ്രൊഡക്ടിൽ എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവരും അതൊന്നു മസ്റ്റ് ട്രൈ പ്രോഡക്റ്റാണെന്നു ഞാൻ പറയും ഇട്സ് വെരി നൈസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു താങ്ക് യൂ മീഷോ ഇനിയും ഇങ്ങനെ ഞങ്ങൾ കൂടുതൽ നമ്മൾ വാങ്ങുന്നതിനു മീഷോ ഇങ്ങനെത്തന്നെ നമുക്ക് കസ്റ്റമേഴ്സിനു നല്ല സർവ്വീസ് തരുമെന്നു പ്രതീക്ഷിക്കുന്നു എനിക്കു ഭയങ്കരമായിട്ടു ഇഷ്ടപ്പെട്ടു താങ്ക് യൂ